കുതിരസവാരി എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഞാനൊരു രണ്ടു പ്രാവിശ്യം കുതിരപ്പുറത്ത് കയറിയിട്ടുണ്ട് ആദ്യം എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കയറാനൊക്കെ പിന്നെ ഹസ്ബൻഡ് നിർബന്ധിച്ചിട്ടിപ്പോൾ അങ്ങ് കയറി കയറി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എന്താ ഇതു നല്ല ഇഷ്ടമായി അപ്പോഴത്തേക്കും സമയം കഴിഞ്ഞു അപ്പോൾ പല സ്ഥലത്ത് ചെല്ലുമ്പോഴും പല ഒരേ സ്ഥലമാണെങ്കിലും പല ആൾക്കാർ വില പറയുമ്പോൾ പല പല വിലയാണ് പറയുക കുതിരപ്പുറത്ത് കയറുന്നതിന് പിന്നെ ഇപ്പോൾ അറിയാല്ലോ എല്ലാ ഇപ്പോൾ എന്ത് പരിപാടിക്കൊക്കെ വന്നാലും കുറച്ച് ആൾക്കാർ തന്നെ ഉണ്ട് ഇതൊരു പ്രൊഫഷണലായിട്ട് കൊണ്ടുനടക്കുന്ന ആൾക്കാർ കുതിര സവാരിക്കാൾക്കാരെ നോക്കി നടക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അതിൽ ചൂതാട്ടം എന്നു പറഞ്ഞാൽ ആ ഒരു ഒരു ഉത്സവത്തിൻ്റെ പറമ്പിലൊക്കെ ആണെങ്കിൽ ഇതുണ്ടാവുമല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ആൾക്കാർ ഇതിൽ പോകുന്നവരുണ്ടാവാം പക്ഷെ എനിക്ക് അതിനോടൊന്നും താല്പര്യമില്ല കാരണം നമ്മുടെ പൈസയൊക്കെ വെറുതെ ഒരുപാട് പൈസകളൊക്കെ ആ ആ അതിൽ ഇപ്പോൾ കളയാനൊക്കെ